ഹലോ ഈ പാടാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ പള്ളീലെ കുർബാന മദ്ധ്യേ ഉള്ള പാട്ട് അല്ലെങ്കിൽ ഗായക സംഘത്തോടൊപ്പം പാടാനൊക്കെ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഈ വിവാഹ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിലൊക്കെ ഈ പിന്നെ മംഗളാശംസകൾ നേർന്നു കൊണ്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ഒക്കെ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമുക്കറിയാം ഇന്നത്തെ കാലങ്ങളിലെല്ലാം സ്റ്റേജ് പരിപാടികളുണ്ട് അപ്പോൾ അവിടെയും ഈ പാട്ട് ഒക്കെ അവതരിപ്പിച്ച് അല്ലെങ്കിൽ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് അവിടെയും നമുക്ക് പാട്ടുകൾ പാടി കരാ മറ്റേ വന്നിരിക്കുന്നവരെയെക്കെ ആസ്വദിക്കുക അവർ സുഖിക്കുക അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള അതിനും ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ മധ്യ പള്ളിയിലെ കുർബാന ഈ ഗായക സംഘങ്ങളുണ്ട് അവരോടൊപ്പം ചേർന്ന് പാടാനും അല്ലെങ്കിൽ ആ അതല്ലാതെ തന്നെയും വ്യക്തിപരമായിട്ടും പള്ളിയിലെ പാട്ടിലുമൊക്കെ ഞാൻ പാടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കലാപരിപാടികളൊക്കെ സംഘടനാ തലത്തിൽ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ വാർഡ് തലത്തിലായാലും കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ വാർഷികത്തോട് അനുബന്ധിച്ചൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുക ആണേലും പാട്ടൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട് അത് അതിനുള്ള പിന്നെ അവസരങ്ങൾ കിട്ടുകാണെങ്കിൽ അത് നമ്മൾ പരമാവധി യൂസ് ചെയ്യും അതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതു പോലെ തന്നെ ഈ വിവാഹ മാമോദീസ വിവിധ ആഘോഷങ്ങൾ ഇത് ഇപ്പോൾ എല്ലാം വലിയ ചടങ്ങുകളാണ് അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പാട്ടുകൾ പാടുകയും മറ്റും ഒക്കെ ചെയ്യാറുണ്ട് സമയങ്ങളിൽ അവരും ഒക്കെ അങ്ങനുള്ള സ്റ്റേജിലൊക്കെ നമുക്ക് പാടാം പാടണമെന്ന് ആഗ്രഹമുണ്ട് അതിനുള്ള അവസരം കിട്ടിയാൽ അത് വിനിയോഗിക്കുമെന്ന് സ്നേഹത്തോട് കൂടി ഓർമിപ്പിക്കുകയാണ്